ഫോട്ടോ സ്റ്റുഡിയോ അല്ലെ ഞങ്ങൾക്ക് ഒരു വെഡ്ഡിംഗ് ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു സേവ് ദി ഡേറ്റിൻ്റെ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത് പേയ്മെൻ്റും കാര്യങ്ങളും ആ ഓക്കെ മുപ്പതിനായിരം രൂപയോ ആ ഓക്കെ ഇത് എവിടെയാണ് നിങ്ങളുടെ ഷോപ്പും കാര്യങ്ങളും വരുന്നത് ഒന്ന് നേരിട്ടു കണ്ട് സംസാരിക്കാൻ ആയിരുന്നു കോഴിക്കോട് എവിടെ ആയിട്ട് എപ്പം വന്നാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും നൈറ്റ് പത്തു മണി വരെ തുറക്കുന്ന എപ്പോഴാണ് ഷോപ്പ് ആ അത് വയനാട്ടിൽ വച്ചിട്ടാണ് ഷൂട്ടിംഗ് വരുന്നത് ലൊക്കേഷനാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ലൊക്കേഷൻ ഇതാണ് പറഞ്ഞേക്കുന്നത് വയനാട് ആ ഉണ്ടാവും ആ വീഡിയോസും കാര്യങ്ങളും ചെയ്യണം ആ അങ്ങനെ ആ അങ്ങനെ അപ്പം ഒരു മുപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ മുപ്പതിനായിരം നാല്പതിനായിരം രൂപ ബഡ്ജറ്റ് ചെയ്തുതരാൻ പറ്റില്ലെ ആ അപ്പം ഓക്കെ നിങ്ങൾ എത്ര വേഗത്തിൽ ഇത് ചെയ്തുതരാൻ പറ്റും

അതിലും കുറഞ്ഞ ബഡ്ജറ്റിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്തുതരാൻ പറ്റില്ലെ ആ ഓക്കെ ഞാൻ ഒന്ന് നിങ്ങളെ വന്നു കണ്ടോളാം അടുത്ത പതിനഞ്ചാം തീയ്യതി അല്ല ആദ്യം സേവ് ദി ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച്ച കഴിഞ്ഞിട്ട് പിന്നെയും ആ രണ്ടും നിങ്ങൾക്കുതന്നെ തരാനാണ് അത് സേവ് ദ ഡേറ്റിൻ്റെ അതുപോല ഇരിക്കും നിങ്ങൾ ചെയ്യുന്ന വർക്കിന് അനുസരിച്ച് ഇരിക്കും ചെയ്തിട്ട് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആണോ എന്നിട്ട് നിങ്ങള വെഡ്ഡിംഗിന് ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ ആ ഓക്കെ വിളിക്കാം